മൃഗവളർത്തല് മൃഗങ്ങളെ പരിപാലിക്കല് ഇവയൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളില് എൻ്റെ കുടുംബത്ത് ഒരുപാട് നടന്ന് കണ്ടുവരുന്നൊരു കാര്യമാണ് കാരണം ഞങ്ങളുടെ എൻ്റെ കുടുംബത്ത് ഒരുപാട് മൃഗങ്ങളെ ഞങ്ങൾ വളർത്തുന്നുണ്ടായിരുന്നു പശുക്കള് ആട് മുയല് കോഴികള് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഒരുപാട് മൃഗങ്ങള് ഞങ്ങളുടെ കുടുംബത്തുണ്ട് ഇവയെല്ലാം ജൈവപരമായ് ഒരുപാട് മാർഗങ്ങള് ഐ മീൻസ് നമ്മൾ പ്രകൃതിദത്തമായ മാർഗങ്ങള് എന്തേലും അസുഖം വന്ന് കഴിയുമ്പം പ്രകൃതില് ഇഞ്ചിയും ഏലക്ക ഗ്രാമ്പു കുരുമുളക് അത് വെച്ച് ഉണ്ടാക്കുന്ന കഷായം അങ്ങനത്തെ ഒക്കെ കൊടുത്ത് വളർത്തുന്നത് പശുക്ക് നമ്മുടെ മൃഗങ്ങൾക്ക് ഒരുപാട് മറ്റുമരുന്നുകളെക്കാലും കൂടുതല് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പ്രകൃതിദത്തായ മരുന്നുകളാണ് അതുപോലെതന്നെ മൃഗങ്ങൾക്കാണെങ്കിലും നല്ല പോഷകാഹാരങ്ങൾ ലഭി കൊടുക്കാനും നല്ല നമ്മൾ കാശുകൊടുത്ത് മേടിച്ചുകൊടുക്കുന്ന പോഷകങ്ങളെക്കാലും കൂടുതല് അവർക്ക് പോഷകഗുണങ്ങള് കിട്ടുന്നത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്ന സസ്യങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നും മറ്റുമാണ് അതിനാൽത്തന്നെ കൂടുതലായും ഞങ്ങള് അവർക്ക് കൊടുക്കുന്നത് പഴവർഗങ്ങൾ ആണ് വീട്ടിലെ മുതിർന്ന ഒരുപാട് പരമ്പരാഗത ഉപദേശങ്ങള് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആടുകൾക്കൊക്കെ അസുഖങ്ങള് വന്നു കഴിയുമ്പം അവർക്ക് നല്ല ജാതിക്കാനീര് ജാതിക്ക പൊട്ടിച്ച് ചൂടുവെള്ളത്തിൽ ചാലിച്ച് കൊടുക്കുന്നത് അതുപോലെതന്നെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന നമ്മുടെ വേറെ വലിയ അസുഖങ്ങള് വരാതിരിക്കാനായിട്ട് എന്തോ കൂടുകളിലും മൃഗങ്ങളുടെ കൂടുകളില് നമ്മള് പൊകയ്ക്കുന്നത് അത് വളരെയധികം ഉപകാരപ്രദമായൊരു പ്രക്രിയ ആയിട്ടാണ് നമ്മുടെ മുതിർന്നവര് പറഞ്ഞുതന്നിരിക്കുന്നത്